എൻ്റെ ഭാവിയെപ്പറ്റി നല്ല പ്രതീക്ഷയുള്ള ഒരാളാണ് ഞാൻ ചെറുപ്പം മുതലേ കുറേ ആഗ്രഹങ്ങളായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് കുറേ കുറേ ആഗ്രഹങ്ങളുണ്ട് പലതും എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച ആഗ്രഹങ്ങളുണ്ട് അതിൽ ഇപ്പോൾ ഞാൻ എത്തിനിൽക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കുറേ മാറ്റുമല്ലോ ആഗ്രഹങ്ങൾ ഒരാഗ്രഹത്തിൽ ഉറയ്ക്കും പിന്നെ മാറ്റി മാറ്റി മാറ്റി അങ്ങനെ ഡോക്ടർ മുതൽ തുടങ്ങി ആഗ്രഹങ്ങൾ മാറി മാറി ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ആഗ്രഹം ഒരു ആർമിക്കാരനാവുക എന്നുള്ളതാണ് പട്ടാളക്കാരൻ ഇന്ത്യയുടെ ഒരു സോൾജിയർ അത് ആർമി വേണം എന്നില്ല നേവി ആവണം എന്നില്ല എയെർഫോഴ്സ് ആകണം എന്നില്ല ഏതായാലും ഒരു ആർമ്ഡ് ഫോഴ്സ് ഇന്ത്യയുടെ ഡിഫെൻസിവ് ഫോഴ്സ് ആയിട്ടുള്ള ഒന്ന് അതില് ഏതായാലും അതാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു എയിം എല്ലാം അതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വർക്കൌട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓട്ടമുണ്ട് അതുപോലെ എല്ലാ എക്സാംസിനു വേണ്ടി പ്രീപയർ ചെയ്യാറുണ്ട് നല്ല നല്ല വാക്കൻസിസ് വരുമ്പോൾ അതിനു വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട് എക്സാംസ് എഴുതാറുണ്ട് അങ്ങനെ ഇതുവരെ ആർമിയുടെ ഒരു റിക്രൂട്ടിമെന്റിനു പോയിട്ടുണ്ട് എയർഫോഴ്സ് എക്സാം എഴുതി നേവി ഒരു എക്സാം എഴുതിയിട്ടുണ്ട് ബി എസ് എഫിന്റെ ഒരു എക്സാം എഴിതിയിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് അതൊക്കെ ഒരു എക്സ്റ്റെൻസ് ആണ് അടുത്തപ്രാവശ്യം എഴുതുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആക്കാനുള്ള അതുകൊണ്ട് എൻ്റെ കരിയറിന്റെ എയിം എന്ന് പറയുന്നത് ഡിഫെൻസ് ഫോഴ്സ് ആണ്